ഹലോ നമസ്കാരം താങ്ക സ സ്ഥലത്തി്റെ ആവ്യത്തിന് വേണ്ട ത എന്നെ റിയൽസ്റ്റുട്ട് ബധപ്പെട്ട് വിളിച്ചതണോ താങ്കളെ സഹായിക്കുന്നതില എനിക്ക് വളരെ സന്തോഷം സാർ താങ്കൾക്ക് എങ്ങനത്തെ സ്ഥലമാണ് എവിടെയാണ് സാർത്തെ സ്ഥലം നോക്കുന്നത് കോഴിക്കോട് മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പ കോഴിക്കോട് ഏരിയയിലാണ് സർന്ന്തൊ ആശത്തിന് വേണ്ടിയ സ്ഥലം നോക്കുന്നത് സാൻെ വീട് വെക്കാനാോതോ ഒരു വ്യൂ പോയിൻ്റ് റിസോർട്ട് പോലത്തെ കാര്യങ്ങൾ പണിയാനണോ എന്തിനാണ്ാർ വീട് വെക്കാാണ് ഓക്ക ഓക്കെ വീട് വെക്കാനാണെങ്കില് നമുക്ക ഒരുപാട് സ്ഥലങ്ങളണ്ട് സാർ ഈ ടൗൺ ഏരിയകൾക്ക് അടുത്താണ അതത് ഗ്രാമപ്രദേശങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലാണ് സാർ സ്ഥലം നോക്കുന്നത് ഓക്കെ ടൗൺ ഏരിയയിലൽ എടുത്താണെങ്കിൽ കോിക്കോട് പ്രധാനപ്പെട്ട ടൗണ് കോഴോട്ടൗണ് അല്ലെിൽ രാമനാട്ടുകാര പോലുള്ള ടൗൺ ഏയകൾ അടുത്ത് നമുക്ക് സ്ഥലമുണ്ട് അവിടെ ഏകദേശം സെൻറിിന് മൂന്ന് മൂന്നേ റ്റു നാല് ലക്ഷം രൂപൽ അധികമാണ് സെന്റിിന് വെരുന്നത് സാറിൻ്റെ ഒരു അഫോർഡബിൾ പ്രൈസ് എത്രയാണ് മാക്സി മിനിമം ഒരു മീഡിയം പ്രൈസ് പറയാമോ സാറിൻ്റെ ഓക്കെ സാർ രണ്ട് രണ്ട് ലക്ഷം പസങ്ങള് സറിന് വീട് അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം അതോ വീട് ഉണ്ടാക്കാനാണ അതോ വീടുള്ള സ്ഥലങ്ങളാണ് സാറ് പ്രിഫറെ ചെയ്യുന്നത് ആ ഓക്കെ വീടുള്ള വീടുള്ള സ്ഥലങ്ങള് നമ്മ നമ്മടെ കയ്യിലുണ്ട് സാർ പക്ഷേ അത് പുയവരങ്ങളിലാണെങ്കില് കൊറച്ചൊക്കെ വില അതിന് കൂടും കാരണം ഒ നമ്മടെ വ്യൂ പോയിൻറ് സെറ്റിൽഡ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കരുന്നു അല്ലാ എന്നുണ്ടെങ്കില് നല്ല ഒരു നോർമൽ വീട് ഒരു സാധാ കോളഞ്ഞി ബേ്സില് അല്ലെങ്കി തോണിൻ്റെ തൊട്ടടുത്തുള്ള വീടുകള ഒൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് സറിന് ഒരു വർഷം വ്യൂ പോയിൻറ് കൂടിയ സ്ഥലങ്ങളാണെങ്കില ഒരു ത്രീ ലാക്ക് ത്രീ ടു ഫോർ ലാക്ക് വരെ പെർസെൻറിന് സ്ഥലം പെർസെൻറിന് പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട് സാർ അങ്ങനത്തെ സ്ഥലങ്ങള് പ്രിഫറെ ചെയ്യുന്നുണ്ട് സാർ ഇപ്പ എവിടെയാണ് താമസിക്കുന്നത് വീടുള്ളതാണെങ്കിൽ അവർക്കൊരു ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് വരാണ് ചോദിക്കാ സാർ അതായത് ടു രണ്ട് ന രണ്ട് നലല്ല വീടായിരിക്കും ഒരു പുതിയ വീടുകളായിരിക്കും എന്തെങ്കിലും സാഹചര്യങ്ങള കൊണ്ട് അബ്രോഡിലേക്ക് സെറ്റിൽ ആവെക്കലൊക്കെ ആയിരിക്കും അവര് ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്ക്സ് വരണ്ട് സാറെ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ സറി് സ്ഥലം എേടെയണാണ് ഓക്കെ ഞാൻ വരുന്ന ഞായറഴച കോഴിക്കോട് വെരുന്നുണ്ട് നമുക്ക് അവിടെ വച്ചച്ച് നേരിട്ട് മീറ്റ്െയ്യാം സാർാ നിങ്ങൾക്ക് വിളിച്ചതിട്ട് സന്തോഷം താങ്ക്യൂ തന്ദി